ആ നമുക്ക് ഇപ്പോൾ ഓഫീസിലോട്ടെ പൂക്കളം ഇടാൻ വേണ്ടിട്ട് കുറച്ച് പൂ വേണം അത്യാവശ്യം വലിയ ഒരു പൂക്കളമാണ് മ് ആ പരിപാടി ഉണ്ട് അപ്പോൾ അത്യാവശ്യം കുറച്ച് പൂക്കള് വേണം അപ്പോൾ ആ നമുക്ക് ഇപ്പോൾ ഒരു എങ്ങനെയാ റേറ്റ് പൂവിനൊക്കെ ഇപ്പോൾ

ആ ആ ഇപ്പോൾ ചെണ്ടുമല്ലി എന്താ കിലോ വില നമ്മളിപ്പോൾ കുറച്ച് ബൾക്കായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ആ ആ ആ നമുക്ക് ഇപ്പോൾ ഒരു ചെണ്ടുമല്ലി രണ്ടും കൂടി ഒരു പത്ത് കിലോ വേണം ഒര് അഞ്ച് കിലോ അഞ്ച് കിലോ വെച്ചിട്ട് ഓരോ കവറിലാക്കി മഞ്ഞ ആ മഞ്ഞേം ഓറഞ്ചും ആ മ് മ് അത് രണ്ടും ഒരു അഞ്ച് കിലോ അഞ്ച് കിലോ വെച്ച് എടുക്കാം ആ പിന്നെ നമുക്ക് ഒരു വാടാമല്ലി ആ റോസ് റോസ് എങ്ങനെയാണ് ആ ആ ആ മ് അപ്പം ഇത് അത് ഒരു അഞ്ച് കിലോ മതി

മറ്റേ വാടാമല്ലി വാടാമല്ലി അഞ്ച് കിലോ നൂറ്റി അമ്പത് എൻപത് ല്ലേ അഞ്ച് കിലോ എടുത്താൽ തൊള്ളായിരത്തി ആവും ഒരു അഞ്ച് കിലോ എടുക്കം എന്നാൽ ഇപ്പോൾ ഇങ്ങള് ആ ടൗണിൽ തന്നെയാണോ ആ ഹലോ ഓക്കെ ശെരി പിന്നെ താമരയുണ്ടോ ആ നമുക്ക് ഇപ്പോൾ താമര ഒരു മൂന്ന് പീസ് താമര വേണം ആ മൂന്ന് മൂന്നെണ്ണം മതി എൺപത് റുപ്യ അല്ലേ പിന്നെ ആ ആ തെച്ചി പൂവുണ്ടാകുവോ ആ ഇല്ലെങ്കിൽ വേണ്ട നമുക്കിപ്പോൾ ആ രണ്ട് കിലോ കിട്ടിയാൽ നന്നായിരുന്നു ആ പിന്നെ വേറെ ഏതൊക്കെയാണ് പൂവുള്ളത് ജമന്തിയുണ്ടോ വെള്ള ജമന്തിയുണ്ടോ

റോസും ഉണ്ട് ആ അപ്പോൾ അരളി ഓ ആ അരളി റോസ് എടുക്ക് ഒരു ഒര് കിലോ മ് അഞ്ച് കിലോ മതി

ജമന്തി രണ്ട് കിലോ മതി വെള്ള മതി മ് ആ തന്നാൽ മതി ആ ആ മ് മതി മതി മതി അത് മതി അത് മതി ആ അരളി ഞാൻ വൈകിട്ട് വരാം മ് ആ ആ ശരി ശരി എന്നാൽ വൈകിട്ട് വരാം